ഹലോ

ഒ വണ്ടി ഏതാണ് മോഡലേതാണ് അല്ല ഏതായിരുന്നു അ അല്ല കാറ് തന്നെ ഏത് കാറാ അത് ആൾട്ടോയോ ഇതിന് എൻജിൻ പണി വന്നിട്ടുണ്ടോ ഇതിനു മുന്നെ ഇതിനു മുന്നെ എൻജിൻ പണി വന്നിട്ടുണ്ടായോ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തതാണോ ഇപ്പോൾ എന്താ നോയ്സൊക്കെ വരുന്നുണ്ടോ വണ്ടിയിൽ നിന്ന് പിന്നെ പുകയൊക്കെയോ അങ്ങനെ

പിന്നെ മെയിനായിട്ട് സ്റ്റാർട്ടാവുന്നില്ല അല്ലേ

അപ്പോൾ പിന്നെ മെയിനായിട്ട് വർഷോപ്പിൽ കൊണ്ട് വന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ അത് ഒന്ന് അഴിച്ചു നോക്കണ്ടേ വർഷോപ്പിൽ കൊണ്ട് വരണം എന്നാലെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് നോക്കേണ്ടി വരും അപ്പോൾ സ്റ്റാർട്ടാവുന്നില്ലേ എൻജിൻൽ എന്തെങ്കിലും ഇപ്പോൾ കരട് കയറിയിട്ടോ എന്താന്ന് നോക്കണ്ടേ അപ്പോൾ അത് വർഷോപ്പിൽ കൊണ്ട് വരണം അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഫ്രീയായിട്ടുള്ള സമയം കിട്ടുമ്പോൾ വർഷോപ്പിലോട്ട് കൊണ്ട് വാ വണ്ടി ഇത് പിന്നെ അഴിച്ചു നോക്കാണ്ട് പറയാൻ പറ്റില്ല ഇതിപ്പോൾ എൻജിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടും അല്ലാതെ എന്തേലും കരട് കയറിയ ഇഷ്യൂ ആണെങ്കിൽ ചെറിയ ബഡ്ജറ്റിന് നമുക്ക് നന്നാക്കി തരാം അതൊക്കെ നമുക്ക് റെഡിയാക്കാം ക്ലച്ചിൻ്റെ കാര്യമൊക്കെ നമുക്ക് റെഡിയാക്കാം കൊണ്ട് വന്ന് വർഷോപ്പിലോട്ട് കൊണ്ട് വന്നാൽ മതി അപ്പോൾ നമുക്ക് അഴിച്ചു നോക്കാണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം വണ്ടിയല്ലേ അപ്പോൾ നമ്മൾ അത് അഴിച്ചു നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞ് നമുക്ക് കുറച്ചൊക്കെ തരാം വർഷോപ്പിലോട്ട് കൊണ്ട് വന്നാൽ മതി നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീയാവുക മറ്റന്നാൾ അപ്പോൾ മറ്റന്നാൾ കൊണ്ട് വന്നാൽ ഒരു രണ്ട് മൂന്ന് ദിവസം പിടിക്കും കേട്ടോ കാരണം നമ്മുടെ വർഷോപ്പിൽ രണ്ട് മൂന്ന് വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു നന്നാക്കി കൊടുക്കുമ്പോൾ കുറച്ചു സമയം പിടിക്കും ധിറുതിയുണ്ടോ

ഓക്കെ സമയം ഓക്കെ സമയം പോലെ എന്തായാലും വണ്ടിയൊക്കെ ക്ലിയർ ആക്കി സെറ്റ് ആക്കിത്തരാം ഓക്കെ നമ്മൾ എന്തായാലും ഒന്ന് ഫ്രീയാകുമ്പോൾ കൊണ്ട് വാ ഓക്കെ ശരി എന്നാൽ